തിരുവനന്തപുരം ജില്ലയിൽ പിന്തുടരുന്ന ചില പൊതുവായ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പരിപാടികൾ ഗവൺമെൻറ്റ് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തുറന്നു കൊടുക്കാറുണ്ട് അതായത് ഇപ്പോൾ സ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നൃത്തോൽത്സവം പിന്നെ ടാഗോർ തിയേറ്ററിൽ ഫിലിം ഫെസ്റ്റിവൽ ഇതൊക്കെ എല്ലാ വർഷവും നടന്നു വരുന്ന ചില ക കലാപരിപാടികളാണ് പിന്നെ മാത്രമല്ല ഓണസമയത്ത് ഓണത്തിൻ്റെ ആഘോഷത്തിനു വേണ്ടി സ്റ്റോളുകൾ തുറക്കും എക്സിബിഷനുണ്ടാകും പിന്നെ പ്രത്യേകം പാർക്ക് പൂജവെപ്പ് സമയത്ത് അതൊരു ഉത്സവം പോലെ റൈഡും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ മേള എന്നൊക്കെ പറയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഗവൺമെൻറ്റ് ഇവിടത്തെ ആൾക്കാർക്ക് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റെന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഗവൺമെൻറ്റ് തന്നെ മുൻഗണന എടുത്ത് മുന്നിലേക്ക് കൊണ്ടു വരും ഈ ഇങ്ങനെയെല്ലാം ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഉള്ള ഒ ഓരോ പരിപാടികൾ വയ്ക്കുമ്പോഴും അവിടെ എല്ലാവരും ഒരുപോലെ ഒന്നിച്ച് ഒരു മനസ്സോടു കൂടി അതിനെ പ്രോത്സാഹിപ്പിച്ചു മുന്നിലേക്ക് ഏറ്റെടുക്കുകയും അതിന് നല്ല ഭംഗിയായിട്ട് ഈ ജില്ലയിലുള്ള ആൾക്കാർ അതിനെ നോക്കുകയും നോക്കി കാണുകയും അതിന് ആഘോഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത് പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐക്യത കൊണ്ടുവരുന്നുണ്ട് അതായത് ഒരു ജാതി മത വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ഒരുപോലെ ഇപ്പോൾ അമ്പലത്തിലെ ഉത്സവമായിക്കോട്ടെ പള്ളിയിലെ ഉത്സവമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ എല്ലാ ജനങ്ങളും ഒരിടത്ത് ഒത്തുകൂടി എല്ലാ ജാതിയിലുള്ളവരും ഒരിടത്ത് ഒത്തുകൂടി അവർ ആ ആഘോഷം എന്താണോ ആഘോഷിക്കുന്നത് അവിടെ നല്ല രീതിയിൽ സന്തോഷമായി ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ഇപ്പം ഫിലിം ഫെസ്റ്റിവലായാലും ഒരുപാട് കാര്യങ്ങൾ നൃത്തോത്സവം ആയാലും എല്ലാ ആൾക്കാരും വന്ന് അവർക്ക് ആസ്വദിക്കാനും അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനുമുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെൻറ്റ് തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്നുണ്ട്